ഞാൻ ആദ്യമായി ഒരു പ്രൊഡക്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് എൻ്റെ സ്വന്തം പൈസ കൊണ്ടുതന്നെയാണ് അത്കൊണ്ട് തന്നെ ഭയങ്കര പേടിയുണ്ടായിരുന്നു കാരണം അത് വാങ്ങണ സമയത്ത് അതിന്റെ ക്വാളിറ്റി എങ്ങനെയാവും അതുകൊണ്ട് ഓരോ സാധനം ഞാൻ നോക്കുമ്പോൾ തന്നെ അതിന്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ട് പക്ഷേ അതിനുള്ള കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സാധനത്തിലൊതുക്കി അതായത് ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് ഒരു ഷൂവാണ് കുറച്ച് കാലങ്ങൾക്കു മുന്നേയാണ് അന്നത്തെ ആ ഒരു ട്രെൻറ്റെന്ന് പറയുന്നത് അന്ന് ഷൂവായിരുന്നു വൈറ്റ് ഷൂ വെള്ള കളർ ഷൂസ് അതുകൊണ്ട് എനിക്ക് അത് വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം ഞാനത് വാങ്ങി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് അത് വാങ്ങിയത് വാങ്ങുന്ന സമയത്ത് ഭയങ്കര ഭയങ്കര കുറെ കാര്യങ്ങൾ തലയിൽക്കൂടെ അങ്ങടും ഇങ്ങടും കടന്ന് പോവുന്നുണ്ടായിരുന്നു അതിന്റെ ക്വാളിറ്റി റേറ്റിംഗ് കളർ മാറി വരുവോ സൈസ് ഇങ്ങനെ ആദ്യമായിട്ട് ഓർഡർ ചെയ്യണ കാരണം സൈസ് എങ്ങനെയാണ് ഇള്ളത് ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്നാലും ഞാൻ ഓർഡെർ ചെയ്തു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷൂ ഓർഡർ ചെയ്തു വൈറ്റ് ഷൂസ് നല്ലതായിരുന്നു നല്ല ക്വാളിറ്റിയായിരുന്നു കുറെ കമന്റ്സൊക്കെ ഉണ്ടായിരുന്നു നല്ലതും ചീത്തതുമായ കുറെ കമന്റ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും മേടിച്ചു നന്നായിട്ടുതന്നെ കിട്ടി